കാർഷിക ഉത്പന്നങ്ങൾ കടത്താൻ ഇന്നു ധാരാളം ഗതാഗത മാർഗ്ഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് റോഡ് റെയിൽവേ അതു പോലെ തന്നെ വ്യോമം തുടങ്ങി എല്ലാവിധ മാർഗ്ഗങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങൾ കടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുമൂലം കർഷകർക്ക് നല്ല വില ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഗ്രാമീണ മേഖലകളിൽ നല്ല റോഡിൻ്റെ അപര്യാപ്തത അതുപോലെ തീര ദേശങ്ങളിലെ ജല ഗതാഗതം ആവശ്യത്തിന് പുരോഗമിക്കാത്തത് പ്രത്യേകിച്ച് കേരളത്തിലെ ഗതാഗത മാർഗ്ഗങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ വരുന്നതു മൂലവും ഗ്രാമീണ മേഖലയിലെ കർഷകർക്ക് അവരുടെ ഉത്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാനും ആവശ്യമായിട്ടുള്ള വില ലഭ്യമാക്കുന്നതിനും കഴിയാതെ വരുന്നുണ്ട് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റ് കൃത്യമായ ശ്രദ്ധ ചെലത്തുകയാണെങ്കിൽ എല്ലാ കർഷകർക്കും അവരുടെ ഉത്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കും റോഡ് വഴി നടത്തുന്ന ഗതാഗതം ലോറികൾ പിക്കപ്പ് വാഹനങ്ങൾ അതുപോലെ നാഷണൽ പെർമിറ്റ് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ദേശീയ പാതകളിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇവയെല്ലാം പര്യാപ്തമാണ് പക്ഷെ ഗ്രാമീണ റോഡുകൾ നന്നാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടു വരുന്നു പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖലകളിൽ തീരദേശ മേഖലകളിലും ആദ്യമെ സൂചിപ്പിച്ചതു പോലെ നല്ല വഴികളുടെ അപര്യാപ്തത ഉണ്ട് മലനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നതും ധാരാളം ജല ലഭ്യത ഉള്ളതും മണ്ണൊലിപ്പ് കൂടുതലുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിലെ റോഡുകൾ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കി റോഡുകൾ പണിയുന്നത് മൂലമുണ്ടാകുന്ന ഉരുൾ പൊട്ടലും മണ്ണൊലിപ്പും പലപ്പോഴും ഗതാഗതത്തിന് തടസ്സമായിട്ടു വരുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്കനുസൃതമായിട്ട് നമ്മുടെ റോഡുകൾ പുനരുദ്ധരിക്കുകയും അതിനനുസൃതമായിട്ടുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ കണ്ടു പിടിക്കുകയും ന്യൂതനമായ മാർഗ്ഗങ്ങളിലൂടെ കർഷിക ഉത്പന്നങ്ങൾ വിപണയിലെത്തിക്കുവാൻ കർഷകരെ സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ട്രെയിൻ വരാനുള്ള അസൗകര്യങ്ങളുള്ളതു കൊണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ മൂലം ഗൂഡ്സ് ട്രെയിനുകൾ വരാനായിട്ട് അല്ലെങ്കിലത് ഉപയോഗിക്കാനായിട്ട് ഇവിടുത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ട് ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ റോഡ് വഴിയുള്ള ഗതാഗതം അനിവാര്യമായിട്ടു വരുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകളെടുക്കുന്ന തെറ്റായ ചില തീരുമാനങ്ങൾ പൊതു നന്മയ്ക്കായിട്ടെടുക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും കർഷകരെ അത് കർഷകർക്കത് ദ്രോഹമായിട്ടു വരുന്നുണ്ട് പ്രത്യേകിച്ച് മോട്ടർ വാഹന വകുപ്പുകളുടെ പല നിയന്ത്രണങ്ങളും വാഹനങ്ങളിൽ അമിതമായിട്ട് ലോഡ് കയറ്റുക നീളമുള്ള വസ്തുക്കൾ കൊണ്ടു പോകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വെക്കുന്ന നിയന്ത്രണങ്ങൾ കർഷകർക്ക് പലപ്പോഴും ദ്രോഹമായിട്ട് വരുന്നുണ്ട് കാർഷിക ഉപകരണങ്ങളായി പ്രത്യേകിച്ച് മുളക് പറിക്കാനും മരം വെട്ടാനുമൊക്കെ ഉപയോഗിക്കുന്ന ഏണികൾ കോവണികൾ അങ്ങനെയുള്ള നീളം കൂടിയ വസ്തുക്കൾ കൊണ്ടു പോകുന്നതിനു വേണ്ടി മോട്ടോർ ഗതാഗത വകുപ്പ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വലിയ നീളമുള്ള വാഹനങ്ങളുപയോഗിക്കാൻ സാധാരണ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്കതിനുള്ള സാമ്പത്തികശേഷികൾ ഇല്ല അപ്പം ആ സമയങ്ങളിൽ ചെറിയ വാഹനങ്ങൾ പിക്കപ്പ് അതു പോലെ ചെറിയ ഓട്ടോറിക്ഷകൾ പെട്ടി ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയൊക്കെ കാർഷികോപകരണങ്ങൾ കൊണ്ടു പോകുന്നതിന് അവരെ സഹായിക്കാനായിട്ട് സർക്കാർ അനുവാദം കൊടുക്കണം അങ്ങനെ കൊണ്ടു പോകുന്ന വാഹനങ്ങൾക്ക് ഈടാക്കുന്ന പിഴകൾ പെറ്റി കേസുകൾ ഒക്കെ ഒഴിവാക്കുകയും കർഷകർക്ക് അനുകൂലമായി തീരുമാനങ്ങളെടുക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ റോഡ് ഗതാഗതം നിലവിലുള്ള റോഡ് ഗതാഗതമാണെങ്കിലും കർഷകർക്ക് വിജയപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളു പലപ്പോഴും നമ്മുടെ ഭൂപ്രകൃതിയാണ് കർഷകർക്കിപ്പോഴും ദ്രോഹമായിട്ട് മാറുന്നത് മാറി മാറി വരുന്ന കാലാവസ്ഥകൾ മഴ വെയിൽ മഞ്ഞ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കർഷകരെ പലപ്പോഴും ദ്രോഹം ദ്രോഹി ക്കുന്ന ഒരു വസ്തുതയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഗവൺമെൻറ് അതാത് കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന സർക്കാർ കൂടുതൽ കർഷകരുടെ കാര്യത്തിൽ കാർഷിക ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനാവശ്യമായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്